ചരിത്രം പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ചരിത്ര സംഭവങ്ങൾ എന്നെ ഏറെ സ്വാദി സ്വാധീനിച്ചിട്ടുണ്ട് അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിക്കോട്ടെ ഫ്രഞ്ച് വിപ്ലവം ആയിക്കോട്ടെ എന്ത് തന്നെ ആയാലും ചരിത്രം പഠിക്കുന്നത് ഞാനേറെ ആസ്വദിച്ചായിരുന്നു പഠിച്ചിരുന്നത് ചരിത്രത്തിൻ്റെ ആസ്വാദനം എന്നെ ഏറെ സന്തോഷിപ്പിച്ചിരുന്നു ചരിത്രം പ കൂടുതലായി പഠിക്കുവാൻ ഞാൻ താൽപ്പര്യപ്പെട്ടിരുന്നു അക്കാലത്ത് ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയാണ് എനിക്കിപ്പോൾ ഓർമ്മവരുന്ന ഒരു ചരിത്ര സംഭവം അന്ന് അത് പഠിക്കുമ്പോഴും അന്ന് അത് വായിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു പേടിയും ഭയവുമുണ്ടായിരുന്നു അത്രയും പേർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ബ്രിട്ടിഷുകാർ ഇന്ത്യക്കാരെ വെടിവെച്ച് കൊല്ലുമ്പോൾ എന്തെന്നില്ലാത്തൊരു പേടി എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല ഇന്നും എനിക്കൊരോർമ്മയാണ് ഇന്നും പലരും ചരിത്രം പഠിക്കുന്നവർക്കും ജാലിയൻവാലാ ബാഗ് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നോവായിരിക്കും